പാടാനായിട്ട് അങ്ങനെ പ്രത്യേക സമയമൊന്നും മാറ്റിവെക്കാറില്ല പാട്ടിഷ്ടവാണ് പാടാനറിയാം പാടാറുണ്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇഷ്ടം പിന്നെ പ്രാർത്ഥനയായിട്ടൊരു ഈശോപ്പാട്ടൊക്കെപ്പാടും പിന്നെ അതുകഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യുമ്പം ഇഷ്ടമുള്ള പാട്ടൊക്കെ മൂളിനടക്കും പാട്ടുകൾ മത്സരത്തിനൊക്കെ പാടാറുണ്ട് പ്രത്യേകിച്ചങ്ങനെ പഠിക്കാറില്ല കേട്ടു പഠിയ്ക്കയാണ് ചെയ്യുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ റേഡിയോ ടേപ്പ് റിക്കോഡറക്കെ വെച്ച് കേട്ടു പഠിക്കും ഇപ്പോൾ മൊബൈലാണ് മൊബൈൽ കേട്ട് പിന്നെ ഫ്രീ ടൈമിലൊക്കെ പാട്ടു കേൾക്കും കേട്ടു പഠിക്കും ഇഷ്ടവുള്ള പാട്ടൊക്കെ പാടി നടക്കും മത്സരങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പ് സോങ്ങിന് പാടാനും പോവും സിങ്കിളായിട്ടുമൊക്കെ പാടാറുണ്ട് കൂടുതലും മലയാളം സോങ്സാണ് പാടുന്നത് സമയം പ്രത്യേകിച്ചങ്ങനെ സമയമൊന്നുമില്ല പത്ത് ഒരു ഒരു അര മണിക്കൂറൊക്കെ ഒരു ഒരു മണിക്കൂറൊക്കെ ചിലപ്പം അങ്ങനെ പാടുക പാട്ട് കേൾക്കാനുപയോഗിക്കും പിന്നെ പാടുകയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പിന്നെ ഇഷ്ടമുള്ള പാട്ടുണ്ടല്ലോ അതിങ്ങനെ ഇഷ്ടം ചില സമയത്തുള്ള ഒരു റീലാക്സിങ്ങ് ടൈം പോലെ ഉപയോഗിക്കും പാട്ടു പാടും അറിയാവുന്ന വരികൾ മൂളി നടക്കും പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ പാട്ടു പാടാറുണ്ട് വിസ്തു കുർബ്ബാനയർപ്പിക്കുമ്പം പാട്ടു പാടാറുണ്ട് എല്ലാം കൂടെ പാട്ടു പാടാൻ ഒരു മണിക്കൂർ ഉപയോഗിക്കുമെന്ന് പറയാം കേൾക്കാനതിൽ കൂടുതൽ സമയമെടുക്കും